നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസരീതി എന്നു പറഞ്ഞെന്നാല് ശരിക്കും അവർ നമ്മളെ അവരെക്കൊണ്ട് തല്ലിപ്പഠിപ്പിക്കുക എന്നുള്ളൊരു രീതിയാണ് ഒരു സമ്പ്രദായമാണ് വരുന്നത് അപ്പോള് അവരെ സ്വയം വളരാൻ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മളവരെ വളർത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അതേസമയം അവർ സ്വയം വളരാൻ തയ്യാറായെന്നാൽ അതിനനുസരിച്ച് നമുക്ക് ആ വിദ്യാഭ്യാസരീതിയിൽ തന്നെയാണേലും മാറ്റമുണ്ടാവും നമ്മുടെ ഇന്ത്യയെ അപേക്ഷിച്ച് മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അവിടെ എന്ന് പറഞ്ഞെന്നാല് ജോലി പഠിത്തത്തോടൊപ്പം തന്നെ അവര് ചെറിയ ചെറിയ തൊഴിൽ കൂടെ അഭ്യസിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അവർക്ക് ഒരു സ്വയംപര്യാപ്തത നേടാനായിട്ട് സാധിക്കുന്നു എന്നാൽ നമുക്കിവിടെയാണെങ്കില് നമ്മൾ കുട്ടികളെ ഒരു പരിധിവരെ വളർത്തി നമുക്ക് അവർക്കാവശ്യമായ കാര്യങ്ങൾ നമ്മൾ പുറകെ നടന്ന് ചെയ്തുകൊടുക്കുകയും അതോടൊപ്പം തന്നെ പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അവര് സ്വയം പഠിക്കാനോ അല്ലെങ്കിൽ സ്വയം വളരാനോ തയ്യാറാവുന്നില്ല നമ്മളവരെ അതുകൊണ്ടവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജോലി സാധ്യതയ്ക്ക് പോലും വളരെ ബുദ്ധിമുട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക് ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മള് കൊണ്ടെത്തിക്കുന്നത് എന്നാല് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കില് അവർക്ക് ആ ഒരു ആ ജോലി ചെയ്യാനുള്ള ആ ഒരു വാസനയും വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ലഭ്യമാവുകയാണ് ചെയ്യുന്നത് അതൊക്കെ വളരെ നമ്മളും അങ്ങനെയുള്ള വിദ്യാഭ്യാസരീതികൾ ഏർപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അത് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ്